ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട അത വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ അഥവാ ലാൻഡ് മാർക്കെന്നു പറയുന്നതും താജ് മഹലാണ് താജ് മഹൽ എന്താ പറയുക ഇന്ത്യയിലെ ഏറ്റവും ഫേയ്മസായിട്ടുള്ളൊരു ലാൻഡ് മാർക്ക് തന്നെയാണ് താജ് മഹലെന്നു പറയുന്നത് നമ്മളുടെ മുംതാസിനു വേണ്ടി ഷാ ജഹാൻ പണിത ഏറ്റവും ബ്യൂട്ടിഫുള്ളായിട്ടുള്ള ഏറ്റവും മനോഹരമായിട്ടുള്ള ഒരൂ സ്നേഹത്തിൻ്റെ ഒരു അടയാളം തന്നെയാണ് അല്ലെങ്കിൽ സ്നേഹത്തിൻ്റെ ഒരു എന്താ പറയുക ഒരു ഒരൂ സ്നേഹത്തിൻ്റെ ഒരു ആലയം തന്നെയാണ് നമ്മളുടെ താജ് മഹൽ അതിലേറ്റവും ഏറ്റും ഏറ്റവും നല്ല രീതിയിലാണ് പണിതിരിക്കുന്നത് ഒരുപാട് സഞ്ചാരികൾ അനുദിനം ഇല്ലാതെ പോകുന്ന നമ്മുടെ പോകുകയാണ് താജ് മഹൽ താജ് മഹൽ പ്രത്യേകതയെന്നു വെച്ചാൽ ഡൽഹിയിലാണിതു സ്ഥിതി ചെയ്യുന്നത് ഏറ്റവും മനോഹരമായിട്ടുള്ള ഏറ്റവും ഏറ്റവും ഭംഗിയായ രീതിയിൽ തൻ്റെ സ്നേഹം തുറന്നു പറഞ്ഞ് തൻ്റെ പ്രിയതമയ്ക്ക് ഒരു സമ്മാനമായിട്ടു കൊടുത്തതാണ് അപ്പത് അത് ഏറ്റവും ബ്യൂട്ടിഫുള്ളായിട്ടുള്ളതാണ് ഇന്ത്യയിലെ ഏറ്റവും ബ്യൂട്ടിഫുള്ളായിട്ടുള്ള ഓരോ ഓരോ അനുദിനം എല്ലാ ദിവസവും അവിടെ എപ്പോഴും അവിടെ സഞ്ചാരികൾ ഇല്ലാത്ത സമയമില്ല അത്രയും സഞ്ചാരികളാൽ നിറയപ്പെട്ട തിരക്കായിപ്പെട്ട ഒരു എന്താ പറയുക വിനോദസഞ്ചാര കേന്ദ്രമാണ് താജ് മഹൽ താജ് മഹൽ സ്ഥിതിചെയ്യുന്നത് അതുപോലെ തന്നെ ഇന്ത്യൻ ഗെയിറ്റ് അതായത് നമ്മുടെ മുംബൈയിൽ ഇന്ത്യൻ ഗെയിറ്റ് നമുക്കറിയാം ഏറ്റവും പ്രശസ്തമായിട്ടുള്ള ഒരു ഒരു ഇതാ ഒരു ഒരിതാണ് ഇന്ത്യൻ ഗെയിറ്റ് ഇന്ത്യൻ ഗെയിറ്റേറ്റവും വളരെ മനോഹരമായ രീതിയിലാണ് ഇന്ത്യൻ ഗേറ്റ് നമുക്ക് അറിയാവുന്നത് അപ്പം താജ് മഹലും ഇന്ത്യൻ ഗേറ്റൊക്കെ എല്ലാം ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ലാൻഡ് മാർക്കുകളിൽ ഉൾപ്പെടുന്നതാണ് ഒരുപാട് ലാൻഡ് മാർക്കുകളുണ്ട് അതിലേറ്റവും പ്രധാനപ്പെട്ടതും ഇംപോർട്ടൻറ്റായിട്ടുള്ള ലാൻഡ് മാർക്കുകളാണിത് അതിൽ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ളത് എന്താ പറയുക നമ്മുടെ സ്നേഹത്തിൻ്റെ പ്രതീകമായിത് തന്നെ നിലനിൽക്കുന്ന ഷാ ജഹാൻ ചക്രവർത്തി മുംതാസിനായിട്ട് പണിത താജ് മഹലാണ് ഏറ്റവും പെർഫെക്റ്റായിട്ടെനിക്ക് തോന്നിയിട്ടുള്ളത് അതു കാണാൻ വേണ്ടി തന്നെ കോടാനുകോടി ആളുകൾ ഇന്നും ആഗ്രഹിക്കുന്നുണ്ട് അൽ അതിൽ ചില ചില ആളുകൾക്കു മാത്രം അവിടെ പോയി അത് ആ ഒരു അതിമനോഹരമായ കാഴ്ച്ചകൾ കാണാൻ പറ്റുന്നുണ്ട് അല്ലാത്താളുകൾ നമ്മളുടെ ഫോണിലും അങ്ങനെ ഓരോ റീൽസിലും കാര്യങ്ങളിലും കണ്ടിട്ട് കാണുന്നു എന്നാലും എല്ലാ മനുഷ്യർക്കും സാധാരണ ആയിട്ടുള്ള എല്ലാ മനുഷ്യർക്കും ഒരു ഒരു വട്ടമെങ്കിലും പോയി കാണുവാൻ ഇഷ്ടംപ്പെടുന്ന ഏറ്റവും അതിമനോഹരമായിട്ടുള്ള ഒരു ലാൻഡ് മാർക്കല്ലെങ്കിൽ ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ടുള്ള ഇതാണ് നമ്മളുടെ താജ് മഹൽ എനിക്കും വളരെയധികം ഇഷ്ടമാണ് അപ്പോൾ അവിടെ ഒരുവട്ടം ഞാൻ പോയിട്ടുണ്ട് അപ്പോൾ ഒരുവട്ടം പോകുമ്പോൾ തന്നെ നമുക്കറിയാം അവിടെ ചെല്ലുമ്പോൾ ഒരു പോസിറ്റീവ് എനർജിയാണ് നമുക്ക് കിട്ടുന്നത് ഇത്ര അത്രയും നേരം നമ്മൾ എന്തു നെഗറ്റീവടിച്ചാലും ആ ഒരു താജ് മഹൽ അവിടെ പോകുമ്പം നമുക്കൊരു നമുക്കൊരു പോസിറ്റീവ് എനർജിയാണ് കിട്ടുന്നത് വെൽ എന്താ പറയുക ഏറ്റവും അടിപൊളി ആയിട്ടുള്ള ഒരു വിനോദസഞ്ചാര കേന്ദ്രം എന്നു പറയാം താജ് മഹൽ ചെറിയൊരു മഞ്ഞും അത് പോലെ തന്നെ ചെറിയൊരു തണുപ്പും ഒക്കെയിട്ട് അതിമനോഹരമായിട്ടുള്ള പച്ചപ്പ് നിറഞ്ഞതും ആ കവാടം എല്ലാം അതിമനോഹരമായിട്ടുള്ള അവിടെ നിൽക്കുമ്പോൾ തന്നെ നമുക്ക് അവിടെ തന്നെ കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യാൻ തോന്നും എനിക്ക് ഏറ്റവും മൈ എൻ്റെ ഏറ്റവും ഫേവറേറ്റായിട്ടുള്ള പ്ലേയ്സാണ് താജ് മഹൽ